എനിക്ക് കുറച്ച് ഒരു പത്ത് പേർക്കുള്ള പൊറോട്ടയും ചിക്കനും ഓർഡർ ചെയ്യുവാനായിരുന്നേ അപ്പോൾ എനിക്ക് അല്ല എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഒരു പത്ത് പൊറോട്ടയും പത്തല്ല പത്തിരുപത് ഇരുപത് പൊറോട്ടയും ഒരു അഞ്ചാറ് ചിക്കൻ കറിയും ഓർഡർ ചെയ്യണം ഉണ്ടാക്കണം എൻ്റെ പേര് ജോളി എന്നാണ് ഞാൻ ഇത്തിത്താനത്താണ് താമസിക്കുന്നത് അപ്പം എനിക്കല്ല എൻ്റെ അടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരിയാണ് അതിൻ്റെ പേര് ജെസ്സി എന്നാണ് അപ്പം അവിടുത്തേക്ക് എൻ്റെ എൻ എന്നെ വിളിച്ചാൽ ഞാൻ പറയാം അവിടുത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇനി അപ്പം പത്ത് പൊറോട്ട പിന്നെ പാഴ്സൽ ആക്കി പിന്നെ കൊണ്ട് വരുമല്ലോ ജെസ്സി എന്ന് പറയുന്ന അപ്പുറത്തെ കൂട്ടുകാരിയാണ് ആ ഞാൻ ഓർഡർ ചെയ്തെന്നേ ഉള്ളൂ എന്നോട് പറഞ്ഞിട്ട് അപ്പം അത് ചെയ്ത് തരുക പത്ത് പൊറോട്ടയും ചിക്കൻ കറി പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്നാ വെജിറ്റബിൾ ഒന്നും വേണ്ട പത്തല്ല ഇരുപത് പൊറോട്ട അല്ലേ ആ ഇരുപത് പൊറോട്ടയും ആറ് ചിക്കൻ കറിയും അവിടെ എനിക്ക് ഫൈൻ പാഴ്സൽ ആക്കി ഞങ്ങൾക്ക് ഓർഡർ ചെയ്യുവാണ് ഞാൻ അറിയാമല്ലോ ഞാൻ ഇത്തിത്താനത്താണ് അത് ജോളി എന്നാണ് പേര് അപ്പം എൻ്റെ അടുത്തുള്ള സുഹൃത്താണ് ജെസ്സി അവരുടെ വീട്ടിലേക്കാണ് ഞാൻ വിളിക്കാം അപ്പോഴത്തേക്കിനും കൊണ്ടുവന്നാൽ മതി ഓക്കെ ആ ശരി